ഉത്സവങ്ങളിൽ കൂടുതലും നമ്മളുണ്ടാക്കുന്നത് ഉണ്ണിയപ്പാമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കും പിന്നെ അവിൽ നനക്കും പായസം ഉണ്ടാക്കും പായസം എല്ലാ തരത്തിലും ആ അടപ്രഥമൻ ചെറുപയർ പായസം സേമിയ പിന്നെ പാലട പ്രഥമൻ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാ ചെയ്യുക പിന്നെ ഉണ്ണിയപ്പം നെയ്യപ്പം ഏഹ് ബോളി പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതൽ ഉണ്ടാക്കുന്നതാണിഷ്ടം ഏഹ് അതാണ് ഇവിടെ ഇവിടെ ഉള്ളവർക്കും എല്ലാവർക്കും ഇഷ്ടം കൂടുതലും നമ്മൾ ഉത്സവങ്ങളിൽ ഉണ്ണിയപ്പമാണ് നേർച്ച കാഴ്ചകളൊക്കെയായിട്ട് നമ്മൾ ഉണ്ണിയപ്പമാണ് വെയ്ക്കാറ് പിന്നെ നല്ല സദ്യ സദ്യ ഉണ്ടാക്കുമല്ലോ എഹ് സദ്യ ഉണ്ടാക്കും സദ്യ ഇംപോർട്ടണ്ടായിട്ടുള്ളൊരു കാര്യമാണ് സദ്യ പിന്നെ പാൽ പാൽച്ചോറല്ല പായസമാണ് പിന്നെ പാൽപ്പായസം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലുണ്ടാക്കുക നമുക്കിവിടെ ഉൽസവങ്ങളിൽ നല്ല ചോറ് സദ്യയാണ് പിന്നെ ആ ഇതുണ്ടാകും എന്താ പറയുക ഉപ്പുമാവ്